ഈ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കളികൾ തമ്മിൽ വ്യത്യാസം എന്നു പറയുന്നത് ഗ്രാമങ്ങളിൽ നമുക്ക് ഒത്തിരിയേറെ കുറേ സ്ഥലങ്ങളുണ്ട് ഈ തരിശ്ശുഭൂമിയും അങ്ങനെയുള്ള കായിക വിനോദങ്ങളൊക്കെ തന്നിരിക്കുന്നതും അവിടുത്തെ കുട്ടികളും ഇപ്പോഴൊരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും ഒത്തുചേർന്ന് ഗ്രാമങ്ങളിലൊക്കെ വൈകിട്ടാകുമ്പോഴത്തേക്കും പല പല വിനോദങ്ങളാണ് കളിക്കുന്നതും അങ്ങനെയുള്ള പല പല കളികളിലേർപ്പെടും പിള്ളേർ കുട്ടികളും എല്ലാവരും ചിലവർ അവിടെ വന്നിരുന്ന് വിശ്രമിച്ച് സംസാരിച്ച് അങ്ങനെയുള്ള കളികളും കാര്യങ്ങളൊക്കെ നടത്തും എല്ലാവരുമങ്ങനെ കുറേ സ്ഥലങ്ങളിലുണ്ട് എല്ലാ സിറ്റികളിലും എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഓരോ ഗ്രൗണ്ടുണ്ട് പിള്ളേർക്ക് കളിക്കാനും വിനോദത്തിനും എല്ലാത്തിനുമായിട്ട് പക്ഷെ പട്ടണങ്ങളിൽ അങ്ങനെയല്ല അവർ തിരക്കിട്ടൊരു ജീവിതവും ഒന്ന് ഒരു അടുപ്പിച്ചടുപ്പിച്ച് വീടുകൾ അങ്ങനെ സ്ഥലങ്ങളില്ല ഇപ്പം മറ്റേ ആർട്ടിഫിഷ്യലായിട്ട് ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണവർ കളിക്കുന്നത് പൈസയൊക്കെ കൊടുത്ത് കളിക്കുന്നു അപ്പോൾ അവർക്കത് വലിയൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ ഗ്രാമങ്ങളിൽ എന്നു പറയുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ തരിശ്ശു ഭൂമികളുണ്ട് പ്ലേ ഗ്രൗണ്ട്സ്കളുണ്ട് അങ്ങനെ നമുക്കൊത്തിരിയേറെ വിനോദങ്ങളുണ്ട് പക്ഷെ ഈ പട്ടണങ്ങളിൽ എന്നു പറയുമ്പോൾ അവർക്ക് കളിക്കാനായിട്ട് സ്ഥലങ്ങളില്ല അടുത്തടുത്ത് വീടുകളുള്ളതുകൊണ്ടും പിന്നെ പിന്നെ ഇവർ പൈസ കൊടുത്ത് ടർഫിലൊക്കെ പോയി കളിച്ച് അങ്ങനെയാണ് കളിക്കുന്നത് പക്ഷെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളെ ഉള്ളൂ ആർട്ടിഫിഷ്യലായിട്ട് ഗ്രൗണ്ടുണ്ടാക്കി അങ്ങനെ കളിക്കുന്നു അതൊക്കെയേ പട്ടണങ്ങളിൽ നടക്കുന്നുള്ളു പക്ഷെ ഗ്രാമങ്ങളിൽ എന്നു പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ഓരോ ഗ്രൗണ്ട് വച്ചിട്ടുണ്ട് പിള്ളേർക്ക് കളിക്കാനും എല്ലാത്തിനുമായിട്ട് തരിശ്ശുഭൂമികളുള്ളതുകൊണ്ട് അങ്ങനെ വിനോദമാണ് പട്ടണങ്ങളിൽ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പിള്ളേരെയൊക്കെ അടച്ചുപൂട്ടി വീടുകളിൽ തന്നെ ഇരുത്തി അതിനുള്ള പല ബുദ്ധിമുട്ടുകളുമുണ്ട് പക്ഷെ ഈ ഗ്രാമങ്ങളിൽ അങ്ങനെയുള്ള തുറന്ന കുറേ പ്രദേശങ്ങൾ അവർ അങ്ങനെയാണ് വിനോദം കണ്ടെത്തുന്നത്